എൻ്റെ വീടിനടുത്തായിട്ട് തന്നെ ഡിഗ്രി കോഴ്സുകൾ പഠിപ്പിക്കുന്ന കോളേജുകൾ ഉണ്ട് അത് മലയാളം ലിറ്ററേച്ചർ ആകട്ടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആകട്ടെ പല വിധത്തിലുള്ള ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്ന പഠിപ്പിക്കുന്ന കോളേജുകൾ ഉണ്ട് അത് കൂടാതെ തന്നെ എഞ്ചിനിയറിങ്ങ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന കോളേജുകൾ പോളിടെക്നിക് കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു കോളജുണ്ട് പിന്നെ ആയുർവേദ ഫാർമസി കോഴ്സുകൾ പഠിപ്പിക്കുന്ന കോളേജുണ്ട് നേഴ്സിങ് കോളേജുണ്ട് മെഡിക്കൽ കോളേജുകളുണ്ട് ഇങ്ങനെ തുടങ്ങി വിവിധ തരത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന കോളേജുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടത്തെ കുട്ടികൾക്ക് തൊട്ട് അടുത്തുള്ള നാടുകളിലേക്കോ അല്ലെങ്കിൽ നഗരങ്ങളിലേക്കോ ഒന്നും പോകേണ്ടതായിട്ടൊന്നും ഇല്ല ഇനി ഇവിടെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും കോളേജുകളും ഒക്കെ തന്നെ ഉണ്ട് അപ്പം തുടർ പഠന പഠനത്തിന് വേണ്ടിയിട്ട് അവർക്ക് മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല പിന്നെ ആശ്രയിക്കുന്നവരുണ്ട്റ കുറച്ച് ദൂരം മാറി നിന്ന് പഠിക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവരുടെ രക്ഷകർത്താക്കളൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ളവരുടെ കുട്ടികളെ മാറ്റി നിർത്തി പഠിപ്പിക്കും പിന്നെ അല്ലാതെ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ തന്നെ ഉണ്ട്